ഇപ്പോൾ ഈ നമ്മുടെ ഒരു മതത്തിൻ്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് മുഖ്യ ഒരു വിശ്വാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മെയിനായിട്ട് നമ്മള് അതായത് നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഒക്കെ അമ്പലത്തിലും അങ്ങനെയൊക്കെ പോണതാണ് നമ്മളിപ്പോഴെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മെയിൻ ആയിട്ടുള്ളൊരു വിശ്വാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പല ദൈവങ്ങളുണ്ട് ഇപ്പോൾ അവരെ നമ്മള് ഇടക്കെപ്പോഴെങ്ങിലും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ നമ്മൾക്ക് കഴിയാൻ പറ്റാത്തത് ദൈവത്തോട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മള് കൂടുതലായിട്ടും ചെയ്യുന്നതെന്ന് വെണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ഒരു വിശ്വാസവും കാര്യങ്ങളെക്കെയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സത്യം പറയണം അങ്ങനത്തെ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതില് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കല്ല് ആ അതൊരു എന്താ പറയാ ദൈവത്തെപ്പോലെ നമ്മള് കാണുക അപ്പോൾ ആ ദൈവത്തെ നമ്മള് പൂജിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുക ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു ഇതാണെങ്കിലും നമുക്ക് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വലുതായിരിക്കും അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഈ മതത്തിൽ നിന്ന് തന്നെ പഠിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും